ഹലോ ഞാൻ ചേട്ടനെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നെ അതായത് ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ഇവിടെ രാമനാട്ടുകര ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലേ അപ്പം ഞാനിപ്പം രാമനാട്ടുകര അതായത് രാമനാട്ടുകര കറക്റ്റ് സ്പോട്ടിലല്ല ഉള്ളത് അവിടെ കുറച്ച് അങ്ങോട്ട് ബൈപ്പാസ് അങ്ങോട്ടേക്കാണ് കേട്ടോ ഉള്ളത് ചേട്ടൻ വഴി മാറിയിട്ട് ഇനി അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചതാണ് ചേട്ടൻ ഇങ്ങോട്ട് വന്നായിരുന്നോ ആണല്ലേ ആ ആ അത് നന്നായി എന്തായാലും ആ ഞാൻ വിചാരിച്ചു ചേട്ടൻ ഇനി അവിടെ എത്തി ഞാൻ ആകെ ടെൻഷൻ അടിച്ചു പോയി ഞാൻ അത് ഞാൻ കുറച്ചു മുൻപേ വിളിക്കുകയും ചെയ്തു വിളിച്ചപ്പം നോക്കുമ്പോൾ കിട്ടുന്നും ഇല്ല ഇനി ഇപ്പം റേഞ്ചിൻ്റെ എന്തെങ്കിലും പ്രശ്നം ആയത് കൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ചു ഇനി ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടാകും എന്ന് ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ അത് കുഴപ്പമില്ല എന്നാൽ ചേട്ടൻ എന്നാൽ ഇങ്ങോട്ട് വരുമോ ഞാൻ ഇതാ ഇവിടെ ബൈപാസ്സിൻറെ അവിടെ തന്നെ ഉണ്ട് ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ആ എന്നാൽ ചേട്ടനോട് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും ഞാൻ ഇവിടെ സൈഡിൽ തന്നെ ഉണ്ടാകും കേട്ടോ ഞാൻ ആ എന്നാൽ ഓക്കേ ഓക്കേ ചേട്ടാ